വരയ്ക്കാൻ തോന്നാത്ത ദിവസങ്ങളെന്ന് വെച്ചാൽ എല്ലാ ദിവസങ്ങളും ഒന്നും വരയ്ക്കാറൊന്നുമില്ല തോന്നുന്ന ദിവസങ്ങളിൽ മാത്രമേ വരയ്ക്കാറുള്ളൂ ദിനചര്യയെന്ന് വെച്ചാൽ ദിനചര്യ വേറെ രീതിയിൽ പോകുന്നു ചിത്രരചന വേറെ എനിക്ക് തോന്നുന്ന സമയത്ത് അല്ലെങ്കിൽ കളറ് കളറുകളും പേന പെൻസിൽ എന്ത് കയ്യിൽ കിട്ടിയാലും എനിക്കെന്തെങ്കിലും മുന്നിൽ കാണുന്ന എന്തെങ്കിലും വരയ്ക്കുന്നേ എന്നൊള്ളു അല്ലാതെ സ്ഥിരമായിട്ട് ഉള്ള ഒരു ചിത്രരചന അങ്ങനെ ഒന്നുല്ല പിന്നെ പ്രചോദനമെന്നു വെച്ചാൽ എനിക്ക് ഒരു എൻറ്റെ ഒരു പാഷൻ ആണ് എനിക്ക് അത് ഭയങ്കര വരയ്ക്കുക എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ല യൂട്യൂബിൽ ഓരോ എനിക്ക് മനസ്സിൽ നിന്നും തോന്നുന്ന മുന്നിൽ കാണുന്ന അല്ലെങ്കിൽ വേറൊരു ചിത്രം നോക്കി വരയ്ക്കുന്നത് അങ്ങനത്തെ ചിത്രങ്ങളാണ് എനക്ക് കൂടുതലും വരയ്ക്കാൻ ഇഷ്ട്ടം ഞാൻ കുറച്ച് സമയം എടുത്ത് പിന്നെ കാണുന്ന ഒരു പെൺകുട്ടിൻ്റെ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു ബട്ടർഫ്ളൈ അല്ലെങ്കിൽ ഒരു പൂവ് ഇവയൊക്കെ കാണുമ്പോൾ എനക്ക് വരയ്ക്കാൻ തോന്നുമ്പോൾ എങ്കിൽ പെൻസിൽ കയ്യിൽ ഉള്ളപ്പോൾ ഒരു ഒരു ക്യാൻവാസിൽ വരയ്ക്കും എന്നല്ലാതെ സ്ഥിരമായിട്ട് ചിത്ര രചന ഒന്നും എനിക്ക് ഇല്ല